ഹലോ മെർമേയ്ഡ് പൂക്കടയല്ലേ ഞാൻ ഇന്നലെ ആ മകളുടെ കല്ല്യാണത്തിന് വേണ്ടി കുറച്ച് പൂക്കൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു പള്ളിയിൽ വെയ്ക്കാനും വേണം വീട്ടിൽ ഒന്നുരണ്ടു ബൊക്ക വെയ്ക്കാനും ഒക്കെ ആണ് ആവശ്യം എങ്ങനെയാ പൂക്കളുടെ റേറ്റ് എങ്ങനെയാ ഇപ്പം ആ എനിക്ക് ഒരെണ്ണം ആ ഓക്കെ ആ എനിക്കെൻ്റെ പള്ളിയിൽ വെയ്ക്കാനായിട്ട് ഒരു ആ ആ എനിക്ക് പള്ളിയിൽ വെയ്ക്കാനായിട്ട് ഒരു ആറു ബൊക്കയുടെ ആവശ്യം ആറ് അല്ല എട്ട് ബൊക്കയുടെ ആവശ്യം ഉണ്ട് അത്പോലെത്തന്നെ എന്റെ വീട്ടിൽ ഒരു രണ്ട് ബൊക്ക വെയ്ക്കേണ്ടതായിട്ടുണ്ട് വീട്ടിൽ കയറി വരുന്ന ആ സിറ്റിങ് റൂമിലേക്ക് ഒരു ബൊക്ക വേണം കാറിന്റെ മോളിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ബൊക്ക വേണം പിന്നെ വീട്ടിൽ സ്ത്രീകൾക്ക് ആയിട്ടുള്ള തലയിൽ വെക്കാനും എല്ലാത്തിനും കൂടി ഉള്ള കുറേ പൂക്കൾ ആവശ്യമുണ്ട് എങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത് ആ എനിക്ക് എനിക്ക് ആ എനിക്ക് ആ റോസാപ്പൂ വേണം മുല്ലപ്പൂ വേണം പിന്നെ ഈ ഇപ്പോൾ ഒരു വാടാർമുല്ല എന്ന് ആ വാടാർമുല്ലയല്ല വേറെയൊരു ടൈപ് ഉണ്ടല്ലോ ജമന്തി കുറച്ച് ജമന്തിപൂവ് ആവശ്യം ഉണ്ട് പിന്നെ അരളിപൂ വേണം ആ ഓക്കെ വരുമ്പോൾ മുല്ലപ്പൂ ആണെങ്കിൽ മുല്ലപ്പൂ ആണെങ്കിൽ മുഴത്തിന് എങ്ങനെയാ റേറ്റ് എനിക്കൊരു ഇരുപത് നമ്മുടെ വീട്ടിൽ ഉള്ള സ്ത്രീകളുടെ തലയിൽ വെയ്ക്കാനും അതിനും ഇതിനും ആയിട്ട് ഒക്കെ ഒരു ഇരുപത് മുഴം മുല്ലപ്പൂ വേണം ഒരു അഞ്ച് ബണ്ടില് റോസാപ്പൂ വേണം അതുപോലെ തന്നെ ജമന്തിയും വേണം ജമന്തി ഒരു അഞ്ച് ബണ്ടിൽ പിന്നെ ബൊക്കയായിട്ട് നിങ്ങൾ ഉണ്ടാക്കി തരുമെങ്കിൽ ഒരു ബൊക്കയുടെ റേറ്റ് പറഞ്ഞേച്ചാ മതി അഞ്ച് എനിക്ക് പള്ളിക്ക് അകത്ത് വെയ്ക്കാനായിട്ടും പള്ളിയിൽ കയറിവരുന്ന സ്ഥലത്ത് എല്ലായിടത്തും നിരത്താനായിട്ടും ഒരു ആറും അഞ്ചും പതിനെട്ട് ബൊക്കയാണ് ആ പറഞ്ഞാൽ മതി പൂവിന്റെ അനുസരിച്ച് എന്ന് പറയുമ്പോ നല്ല നല്ല റോസാപൂ വൈറ്റ് കളറിൽ ഉള്ള റോസാപ്പൂ ചെയ്യുന്നതിനുള്ള റേറ്റ് പറഞ്ഞേച്ചാൽ മതി പതിനൊന്ന് ബൊക്കയ്ക്കുള്ള മുല്ലപ്പൂ അല്ല പതിനൊന്ന് ബൊക്കയ്ക്ക് ഉള്ള പൂവ് റോസ് ഓക്കെ നമുക്ക് അത് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം നല്ല രീതിയിൽ ചെയ്ത് തരണം എന്ന് മാത്രം വാടിയ പൂവൊന്നും ആയിരിക്കരുത് ആ ഓക്കെ വൈറ്റ് കളർ മതി ഓക്കെ ഓക്കെ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് വല്ലതും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കടയിലേക്ക് വരാം എന്നിട്ട് ഫിക്സ് ചെയ്തേക്കാം ഓക്കെ ഞാൻ നാളെ രാവിലെ ഒരു പത്തുമണി ആവുമ്പോൾ കടയിൽ എത്തിയിരിക്കും